നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ഗുണമെന്ന് പറഞ്ഞാൽ യോഗ നമുക്ക് മനസ്സിന് മനസ്സിനും ശരീരത്തിനും ഒരേ പോലെ നല്ല ഒരു എക്സർസൈസാണ് യോഗയില് രണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് കുറേ അധികം ഗുണങ്ങള് ഉള്ള ഒരു സംഭവമാണ് യോഗ ഇപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മസ്സിലുകള് നമ്മുടെ ജോയിൻറുകള് എല്ലാം ഒരേപോല ഒരേ സമയം അത് എപ്പോൾ നമ്മള് നോക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഏത് എക്സൈസ് ചെയ്യുമ്പോഴും ഇത്ര ഒരു എഫക്ട് കിട്ടില്ല പക്ഷേ ഇത് നമ്മള് അതേ മറിച്ച് യോഗ ചെയ്യുമ്പോൾ അത് സാവധാനം ശ്വാസം എടുത്ത് അത് ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ ഓരോ ജോയിൻറ് ഓരോ ഇപ്പോൾ നമ്മളകത്തുള്ള ഓർഗനാണെങ്കിലും പുറത്തുള്ള ഇപ്പോൾ ബോഡി പാർട്ട്സാണെങ്കിലും എന്ത് ഇതാണെങ്കിലും അത് നമുക്ക് നല്ല ഒരു എഫക്ട് കിട്ടും ഇപ്പോൾ നമ്മള് വേദന ഇള്ള ഭാഗങ്ങള് ഇപ്പോൾ പണ്ടുള്ള ആൾക്കാര് വേദനയുള്ള ഭാഗങ്ങളില് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട അനക്കാണ്ട് വെക്ക് അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോഴത്തെ ഡോക്ടർമാര് പറയുക എന്നാൽ നമുക്ക് നേരെ മറിച്ച് ഇപ്പോൾ ആയുർവേദം അങ്ങനെ ഇപ്പോൾ യോഗ ഇതിറ്റ പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതു ഭാഗത്താണോ നിങ്ങൾക്ക് വേദന അത് നിങ്ങള് എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്നത് ആ ഭാഗം കൃത്യമായിട്ട് അതേ പോലെ ഉപയോഗിക്കാനാ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത് എന്താ പ്രശ്നമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിനെ ഒരൂ എന്താ പറയുക നമ്മളനക്കാണ്ട് വെയ്ക്കുമ്പോൾ അത് വീണ്ടും മടി പിടിച്ച പോലെയാകും അതേ മറിച്ച് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണന്നു പറഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്ടായിട്ട് വർക്കാവുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ അതിനു നല്ല എഫക്ടും കിട്ടും